വൃത്തികെട്ട ഒരു ഫോണാണ് കാരണം ഒന്ന് നിലത്ത് വീണുപോകുമ്പോഴത്തേക്ക് ഗ്ലാസ്സ് പൊട്ടുന്നു ഡിസ്പ്ലേ പോകുന്നു മാറ്റണമെങ്കിൽ രണ്ടാഴ്ച സമയമെടുക്കുന്നു അധികം കയ്യിൽ വഴങ്ങുന്നില്ല തെന്നിപ്പോകുന്നു അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ബാഡ് എഫെക്ട് ഉപയോഗിക്കുന്ന ആർക്കും സംതൃപ്തി ആയിട്ടുള്ള ഒരു റിപ്ലൈ ഇല്ല